ഇപ്പോൾ ഒരു പൂന്തോട്ടം പാലിക്കാൻ നല്ല ചിലവ് കാര്യങ്ങളക്കെയാണ് കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനിടുന്ന വളങ്ങൾ പിന്നെ നമുക്ക് ഇപ്പോൾ വെള്ളമോ കാര്യങ്ങളൊന്നൂല്ലങ്കിൽ ഇപ്പം വെള്ളമില്ലാത്തൊരു ഒരു വീടാണെങ്കിൽ അപ്പം അവിടെ ഈ നമ്മളിപ്പോൾ പുറമേന്ന് വെള്ളമോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അതിന് നല്ല പൈസയായിരിക്കും വെള്ളത്തിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളക്കെ ഉണ്ട് അപ്പം നമ്മളൊക്കെ ഇടക്കിടക്ക് അതായത് എന്നും ഡെയിലി നനച്ച് കൊടുക്കണ്ട ഒരവസ്ഥയാണ് അപ്പം വെള്ളം വെള്ളത്തിന് നല്ല ചിലവ് കാര്യങ്ങളൊക്കേയുണ്ടാവും അപ്പം എന്താ പറയാ ഒന്നാമത് നമ്മൾ എന്തെങ്കിലുവൊക്കെ വളോക്കെ ഇട്ട് കൊടുക്കുന്നതിന് നല്ല രീതിയിലുള്ള പൈസേം കാര്യങ്ങളുവൊക്കേണ് ഇപ്പം ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ പശുവൊ വി പശുവൊ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാണെങ്കിൽ നമ്മൾ പുറമെ നിന്ന് ചാണകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പം അതിന് ഒരു ട്രാക്റ്ററിന് അയ്യായിരം ആ ഒരു റേറ്റ് വരും അപ്പം നമ്മളത് ഫുള്ളായിട്ട് മേടിച്ചിട്ട് ഡെയിലി കുറെശ്ശെ കുറെശ്ശെ ഇട്ട് കൊടുക്കുവൊക്കെയാണെങ്കിൽ നല്ല രീതിയിലുള്ള പൂ പൂക്കളും പച്ചക്കറിയാണെങ്കിലും ഫലങ്ങളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഉണ്ടാകും അപ്പം അതിനെക്കെ നല്ല പൈസേം കാര്യങ്ങളും ആകും ഒരു ട്രാക്റ്ററിന് തന്നെ വിളിക്കുകയും നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവരണതിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപേൻ്റെക്കെ അടുത്ത് വരും അപ്പം മൊത്തം ഒരു നാലായിരം അയ്യായിരം രൂപേൻ്റെ മുകളിൽ ഓരോ ഇതിനും വരുന്നതാണ് അപ്പം നല്ല ചിലവേറിയ ഒരു കാര്യമാണ് ഈ പൂന്തോട്ടം പരിപാലിക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞാൽ